ഹലോ ആ ഇതാരാണ് അതെ അതെ എന്തായിരുന്നു ഓക്കെ എങ്ങനെ എടുക്കുന്നതെന്നാണോ അപ്പോൾ രണ്ട് തരത്തിലുള്ള ഗോൾഡ് ലോൺ ഉണ്ട് ഒന്ന് അഗ്രികൾച്ചറലും മറ്റേത് നോൺ അഗ്രികൾച്ചറലും ഉണ്ട് അപ്പം ഏതാണ് പ്രിഫർ ചെയ്യുന്നത്

ആ അതാണ് ആ അഗ്രികൾച്ചർ ആവുമ്പോഴത്തേക്ക് നമുക്ക് ഇൻ്ററസ്റ്റ് കുറവാണ് ഏകദേശം ഒരൂ അൻ അഞ്ച് ശതമാനം ഒക്കെ ഇൻ്ററസ്റ്റ് വരുന്നുളളൂ അപ്പോൾ അതിന് ആവശ്യമുള്ള സ്ഥലം ഉണ്ടല്ലോ അല്ലേ ആ എത്ര സെൻര് ഉണ്ട് ഓക്കെ ഓക്കെ അപ്പോൾ കരം അടച്ച രസീതും നമ്മുടെ ആധാർ കാർഡ് പിൻ അതൊക്കെ അതിന് ആവശ്യമുള്ള ഡോക്യുമെൻറ് പിന്നെ ഈ സ്ഥലം നം നിങ്ങളുടെ തന്നെ ആണെന്നുള്ളതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്ന് വാങ്ങിക്കണം ആ ഓക്കെ അപ്പോൾ ഇത് ഇത്രയും ഒക്കെയാണ് വേണ്ടത് പിന്നെ എത്ര എത്രയാണ് വേണ്ടത് സ മീൻസ് പൈസ എത്രയാണ് വേണ്ടത്

ഒരു ഏകദേശം ഒരു പത്ത് പവൻ വരുമ്പോഴത്തേക്കും ഒരു അഞ്ച് ലക്ഷമൊക്കെ കിട്ടുമായിരിക്കാം അപ്പോൾ അത് നമുക്ക് മൊത്തം സ്വർണ്ണമൊക്കെ നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ അത് പിന്നെ സ്വർണ്ണത്തിൽ കല്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഓക്കെ അപ്പോൾ കുഴപ്പമില്ല കല്ലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ് വെയിറ്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ട് വരും അതുകൊണ്ടാണ് ചോദിച്ചത് കല്ല് ഉണ്ടോ എന്ന് എന്ന

തിരിച്ചടവ് വരുമ്പോൾ ഫൈവ് പെർസെൻറേജ് ഇൻ്ററസ്റ്റ് ആണ് വരുന്നത് അത് നമുക്ക് കണ്ട് മീറ്റ് ചെയ്തിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ചാൽ പോരേ അത് പ ആ അത് പറയാം ആ നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ രാവിലെ ഒരു പത്ത് തൊട്ട് വൈകുന്നേരം ഒരു നാല് മണി വരെയാണ് ഞങ്ങളുടെ വർക്കിംഗ് ഹവേഴ്സ് അതിൻ്റെ ഇടയിൽ എപ്പം വേണമെങ്കിലും വന്നാൽ നമുക്ക് മീറ്റ് ചെയ്യാം

ആ ആയിരിക്കും ആയിരിക്കും അപ്പോൾ നമുക്ക് രണ്ട് മണിയൊക്കെ ആവുമ്പം മീറ്റ് ചെയ്യാം നാളെ അല്ലേ ആ അപ്പം സ്വർണ്ണം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ബ ചെക്ക് ചെയ്യുന്ന ആൾ ഉണ്ടാവും ചെക്ക് ചെയ്തിട്ട് നമുക്ക് വേണ്ടത് തീരുമാനിക്കാം എത്രയാണ് അടവ് വേണ്ടതെന്നൊക്കെ ഉള്ളത് പറയാം ആ ഓക്കെ താങ്ക് യു